ഞങ്ങളുടെ പാചക രീതി എന്നു പറയുന്നത് ഞങ്ങളൊരു കാറ്ററിങ്ങ് സർവീസ് നടത്തുന്ന ആളുകളാണ് അപ്പം നമ്മൾ വീട്ടിലിരുന്നു കൊണ്ടു തന്നെ എന്താ ഒരുപാട് ഓർഡറുകൾ നമുക്കു കിട്ടും ആ ഓർഡറിനനുസരിച്ചു നമ്മൾ സദ്യയും മറ്റു സാധനങ്ങളും ഇപ്പം ബിരിയാണിയാണ് നമുക്ക് ഓർഡർ ഉദ്ദേശിച്ചതെങ്കിൽ ബിരിയാണി അതല്ലെങ്കിൽ സദ്യ പിറന്നാൾ കല്ല്യാണങ്ങൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പരിപാടിയിലേക്കു നമ്മൾക്ക് ഓർഡർ തരികയും നമ്മളാ പറഞ്ഞ സമയത്ത് നമ്മളീ സദ്യ ഓർഡർ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുന്നു പിന്നതിനോടൊപ്പം തന്നെ നമുക്കു രാവിലത്തെ ബ്രേക്ക് ഫാസ്റ്റിനുള്ള ഇഡലി ദോശ അങ്ങനെയുള്ള സംഭവങ്ങളിലേക്കു വേണ്ട സാമ്പാർ ചട്ട്ണി അങ്ങനെയുള്ള കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കലുണ്ട് പിന്നെ നമുക്ക് നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ മഞ്ചേരി എന്ന എന്നൊരു സ്ഥലത്ത് നമുക്ക് അവിടെ ഹോട്ടലുകളുണ്ട് ആ ഹോട്ടലിലൊക്കെ നമുക്ക് ഓരോ ഹോട്ടലിൽ ചെല്ലുമ്പോഴും നമുക്കോരോ ഭക്ഷണമാണ് അതിപ്പം നമുക്കൊരു ഷവർമ്മ കഴിക്കണം അല്ലെങ്കിൽ ഒരു ഷവ്വായ കഴിക്കണമെങ്കിൽ നമ്മളേറ്റവും കൂടുതൽ ആളുകൾ തിരഞ്ഞെടുക്കുന്നൊരു കടയെന്നു പറയുന്നത് കെ ആറാണ് അപ്പം നമുക്കതുപോലെ നല്ലൊരു ബിരിയാണി കിട്ടണമെങ്കിൽ നമ്മൾ തിരഞ്ഞെടുക്കുക ഒരു ഫർസയാണ് അപ്പോൾ നമ്മളിപ്പം വീട്ടിലുണ്ടാക്കുന്ന സാധനങ്ങളാണെങ്കിൽ കൂടി അതു നമ്മളുടെ ചുറ്റുവട്ടത്തുള്ള ഹോട്ടലുകളിലും ലഭ്യമായ സാധനമാണ് പക്ഷേ എങ്കിലും നമ്മളെപ്പോഴും ടേസ്റ്റാണല്ലോ നമുക്ക് മുഖ്യം ഏത് ഏത് സ്ഥലത്തു നിന്നാണ് ഏറ്റവും നല്ല ഭക്ഷണം രുചിയിൽ കിട്ടുന്നോ അതാണല്ലോ നമ്മളന്വേഷിച്ചു പോകുക അതിപ്പം നമ്മൾ വീട്ടിൽ നിന്നു കൊടുക്കുന്ന ഭക്ഷണമാണെങ്കിലും ഹോട്ടലുകളിൽ നിന്നു കഴിക്കുന്ന ഭക്ഷണമാണെങ്കിലും ഏറ്റവും മികച്ചത് എവിടെയാണോ അവിടെ പോയിട്ടു കഴിക്കാനാണ് നമ്മളോരോരുത്തരും ഇഷ്ടപ്പെടുന്നതും ആഗ്രഹിക്കുന്നതും അപ്പം നല്ല ഭക്ഷണം കിട്ടുന്ന സ്ഥലം തേടി തേടി നമ്മൾ പോകുക അപ്പം എവിടെയാണോ ഏറ്റവും നല്ലത് അതിലേക്കു ചെന്നെത്തിക്കാനുള്ളതാണ് നമുക്കെപ്പോഴും നമ്മൾ ചെയ്യുന്നൊരു കാര്യം അപ്പോൾ നല്ലൊരു ഭക്ഷണം തന്നെയാണ് നല്ല ഭക്ഷണ രീതിക്കനുസരിച്ചു നമ്മൾ കൊടുക്കുന്നതു പിന്നെ നമുക്കിഷ്ടം പോലെ ഓർഡറുകളും കിട്ടുന്നുണ്ട് നമ്മൾ കൊടുക്കുന്ന ഭക്ഷണം നല്ല രീതിയിലും നല്ല ടേസ്റ്റും ആയതു കൊണ്ടായിരിക്കാം വീണ്ടും വീണ്ടും നമുക്കു നല്ല ഓർഡറുകൾ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് നമ്മളതു ചെയ്തു കൊണ്ടേ ഇരിക്കുന്നുണ്ട്